മലയാളത്തിലെ ഭാഷ അവബോധങ്ങളെ പറ്റി കുഞ്ഞ് നാളിൽ പഠിച്ചിട്ടുണ്ട് കൊച്ചുനാളിൽ ചെറിയ ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ട് മലയാളത്തിലെ ഭാഷകൾ എല്ലാം തന്നെ ഒരു പോലെ ആണ് നമ്മൾ എഴുതുന്നതെങ്കിലും പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് അത് ഉപയോഗിക്കാറുള്ളത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ ഭാഷയും തൃശ്ശൂർ ഭാഷ കോഴിക്കോട് ആ സ്ഥലങ്ങളിലുള്ള ഭാഷകളിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രത്യേകം പ്രത്യേകം ആയിട്ടുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത് മലയാളം ഭാഷയാണെങ്കിൽ പോലും സംസാരിക്കുന്നത് പല രീതിയിലാണ് എഴുതുമ്പോൾ അവർ ഉപയോഗിക്കുന്നതെല്ലാം ഒരേ രീതിയിലുള്ള അക്ഷരങ്ങളും കാര്യങ്ങളും എല്ലാമാണ്